ഇന്നത്തെ കാലത്ത് ബന്ധുക്കളുടേയിലും കൂട്ടുകാരുടേയിലും വിവാഹങ്ങളിൽ നൃത്തം ചെയ്യുക എന്നുള്ളതൊരു സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഉള്ളത് ഇപ്പഴത്തൊരു കാലഘട്ടത്തിൽ ഹൽദി സംഗീത് ഫങ്ങ്ഷനൊക്കെ പറഞ്ഞു നോർത്ത് ഇന്ത്യൻസ് ഉത്തരേന്ത്യക്കാർ നടത്തിയിരുന്ന പലതും കേരളീയവൽക്കരിച്ച് ഇപ്പോൾ മലയാളികളും അത് ചെയ്യുന്നുണ്ട് ഞാനും നൃത്തം കസിൻസിൻൻ്റെയും ഫ്രണ്ട്സ്സിൻ്റെയൊക്കെ കല്യാണങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും നമ്മളൊരു ഒരു ഒരു സ്വീറ്റ് സോങ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലാസിക്കൽ പരമായിട്ടുള്ള സോങ്ങുകൾ ആണ് കല്യാണത്തിന് കൂടുതൽ പിന്നെ കുറച്ച് ബീറ്റ് കൂടുതലുള്ള മ്യൂസിക്കിനു കുറച്ചുകൂടെ ബീറ്റ് കൂടുതലുള്ള സോങ്ങുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് ഏറ്റവും നമ്മൾ ഫെയിമസ് ആയിട്ട് നമ്മൾ എടുക്കാറുള്ളൊരു സോങ്ങ് ആണ് മുണ്ട തോട ഓഫ് ബീറ്റ് ഹെ പെർ ഘുടിയ ദേനാൽ ബഹ്ത് സ്വീറ്റ് ഹെ അത് ഒരു സോങ്ങ് പിന്നെ കണ്ണാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് കംമ് ഇതെല്ലാം കൂടുതൽ നമ്മൾ മാരേജുകളിൽ ഫൺഷനുകളിൽ കാണുന്ന കേൾക്കുന്ന സോങ്ങുകളാണ് പിന്നെ ഇപ്പോൾ കുറേ ന്യൂ ജെൻ പാട്ടുകളും ഉണ്ട് നല്ല ബീറ്റ് ഉള്ള ചെക്കനും പെണ്ണിനും കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹണി ബി ടു മൂവിയിൽ ഒരു സോങ്ങുണ്ട് അത് അത് പോലെ പല സിനിമകളിലും ഇത്ര കല്യാണം തലേന്ന് നടത്തുന്ന രീതിയിലുള്ള സോങ്ങുകൾ അവൈലബിൾ ആണ്